ഉത്സവങ്ങള്ക്കായിട്ട് ഞങ്ങൾ ദൈവവിഗ്രഹങ്ങള് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതില് പ്രധാനപ്പെട്ടതെന്തെന്ന് വെച്ചാൽ വിനായക ചതുര്ത്ഥി ഗണേശോത്സവം തുടങ്ങിയ ഉത്സവങ്ങള്ക്ക് വേണ്ടിയിട്ട് ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഞങ്ങള് ഉണ്ടാക്കിയിട്ടുണ്ട് കൂട്ടുകാരുമൊത്ത് ചെറിയ ചെറിയ വിഗ്രഹങ്ങളാണ് ഞങ്ങളുണ്ടാക്കിയിട്ടുള്ളത് ഇത് വളരെയൊരു സന്തോഷം നല്കിയൊരു അനുഭവം തന്നെയാണ് ഈ വിഗ്രഹങ്ങളുണ്ടാക്കുന്നത്